മീൻ പിടുത്തം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നു വെച്ചിട്ടുണ്ടെങ്കില് മെയിനായിട്ടിപ്പോൾ നമുക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്കറിയാൻ പാടില്ലാത്തത് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് നമ്മളൊക്കെ വിചാരിക്കും അവർക്ക് ഭയങ്കര സുഖമാണ് മീൻപിടുത്തക്കാർക്ക് നല്ല പൈസ കിട്ടും അപ്പം നല്ലൊരു ചാകര വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പൈസ പൈസയൊക്കെ കിട്ടും അത്യാവശ്യം കാരണം അവരത്രയും കഷ്ടപ്പെട്ട് അവരുടെ ജീവൻ വരെ പണയം വെച്ചിട്ട് പണിക്ക് പോവുന്നതാണല്ലോ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൈസ കിട്ടുവാണെങ്കിലും അത് നമുക്ക് അത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് അത്ര വലിയ പൈസയൊന്നുമായിട്ട് ഒരിക്കലും തോന്നില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മീൻപിടുത്തമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അത്രക്ക് റിസ്ക്കുള്ളൊരു കാര്യമാണ് പക്ഷെ ജീവിക്കാൻ അപ്പോൾ ജീവിക്കാന് വേണ്ടി അവര് ചെയ്യുന്നെന്നേ ഉള്ളു ഇപ്പം ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും പിന്നേന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടാണ് അതായത് നമുക്ക് അതായത് നമ്മള് കടലിൻ്റെ നടുക്കൊക്കെ പോയിട്ടായിരിക്കും ചില സമയം നമ്മള് പിന്നെ മീനൊക്കെ പിടിക്കാൻ പോവാറ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെയുള്ളോരു ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അതായത് പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമായിരിക്കും അത് നമ്മള് മനസ്സിലാക്കുന്നില്ല നമ്മളത് അത് എന്നാൽ കഴിക്കുന്നു നല്ല രുചിയോടെ കഴിക്കുന്നു അത്രേയുള്ളൂ